കേരളത്തിൽ ഇന്ന് ആരോഗ്യ പരിരക്ഷ മേഖലയിൽ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാല് പിന്നെ ഒരുപാട് പൈസ ചിലവുമാണ് അതുപോലെ തന്നെ അധികം സാങ്കേതിക വിദ്യ ഒന്നും നമുക്ക് ലഭ്യമല്ലായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റൽ അതുപോലെ ക്ലിനിക്കുകളിലും അതുപോലെത്തന്നെ ഡോക്ടർസും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സാഹചര്യം വന്നാലും ഇപ്പോൾ ഓപ്പറേഷൻ ആയിക്കോട്ടെ പിന്നെ അതുപോലെ അറ്റാക്ക് അതുപോലെ കാൻസർ എന്നിങ്ങനെ എന്ത് ആയിക്കോട്ടെ എല്ലാത്തിനും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് കാണിക്കാനും അത് മാറ്റാനുമുള്ള ഒരു സാങ്കേതിക വിദ്യ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ കോ ഈ നമ്മുടെ ജില്ലയിലെ കോഴിക്കോട് ജില്ലയിൽ ആയിക്കോട്ടെ അതുപോലെ മറ്റുള്ള എറണാകുളം അതുപോലെ വയനാട് ഇങ്ങനെ ഒരുപാട് ജില്ലകളിൽ ഒക്കെ ഒരുപാട് ഇപ്പം മെഡിക്കൽ കോളേജ് ഇപ്പം വയനാട്ടിൽ ഒക്കെ ഒരുപാട് ഇപ്പം മെഡിക്കൽ കോളേജ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കോ നമ്മുടെ ജില്ലയിൽ ആദ്യം തന്നെ ഒരു മെഡിക്കൽ കോളേജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികം ചിലവില്ലാത്ത രീതിയില് അവിടെ ചെന്ന് നമ്മുടെ അസുഖം മാറ്റാവുന്നതാണ് അവിടെ തന്നെ ഓപ്പറേഷൻ ആയിക്കോട്ടെ അതുപോലെ കുട്ടികളുടെ എന്ത് അസുഖവും ഇപ്പം ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് തന്നെ ഒരുപാട് അസുഖങ്ങളും എല്ലാം ഉണ്ട് ആ അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഒരു ഒന്ന് ഒന്നര മാസം കിടക്കുമ്പോൾ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഒ ലക്ഷങ്ങൾ ആകും അപ്പം നമ്മുടെ സാധാരണകാർക്ക് അതുപോലുള്ള രീതിയില് ആ ചിലവില് വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ലല്ലൊ അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നും കുറഞ്ഞ ചിലവില് നമുക്ക് നമ്മുടെ അസുഖങ്ങൾ ഒക്കെ മാറ്റിയെടുക്കാം അതുപോലെ തന്നെയാണ് ഡോക്ടർ ഡോക്ടർസും ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ഇപ്പോൾ ഒരുപാട് ഡോക്ടർസും നമുക്കിടയിൽ ഉണ്ട് അപ്പം നമുക്ക് പെട്ടന്ന് തന്നെ കാണിച്ച് പോകാൻ ആദ്യമൊക്ക് ഒരു ഡോക്ടറും പിന്നെ ഒരുപാട് പേഷ്യൻ്റസും ആണല്ലോ അപ്പം നമ്മള് കാത്തിരുന്ന് കാത്തിരുന്ന് മടുക്കുമായിരുന്നു എന്നാൽ ഇന്ന് ഒരു ഇപ്പോൾ ഒരുപാട് ഡോക്ടർസും അതുപോലെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഒക്കെ നമ്മുടെ എല്ലാ രീതിയിലും മാറ്റിമറിച്ചിട്ടുണ്ട് ഈ ആരോഗ്യ രംഗത്തും അതൊരുപാട് മാ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഇപ്പം അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ അവർക്ക് വീടിനേക്കാൾ സുഖസൗകര്യത്തിൽ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കിടക്കാവുന്നതുമാണ് അങ്ങനെയുള്ള ഒരു ലഭ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ആരോഗ്യ പരിരക്ഷ മേഖലയിലൊക്കെ നല്ല രീതിയിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്